നമ്മുടെ ഇപ്പം നമ്മുടെ കേരളത്തിലെ സമൂഹത്തിലൊക്കെ സർക്കാരിൻ്റെ പങ്കിൽ വന്ന അതായത് കാലക്രമേണ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ആദ്യമൊക്കെ നമുക്കെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം ആരെങ്കിലുമിപ്പം ഡോക്ടറെ കാണിച്ചു ഇപ്പം ഡോക്ടറെയൊക്കെ കാണിച്ച് നമ്മളിപ്പം അഡ്മിറ്റൊക്കെ ആണെങ്കിൽ അതിൻ്റെ രേഖകളും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്ടായിട്ട് അവർ എഴുതിയാണ് വയ്ക്കുക എല്ലാം ബുക്കിലൊക്കെ എഴുതി നോട്ട് ചെയ്യുകയാണ് ചെയ്യുക അതു ചിലപ്പോൾ നമുക്ക് എന്താണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പിന്നെ ഒരു പിന്നീടൊരു ദിവസം നമ്മൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അതുണ്ടായിയെന്നു വരില്ല കാരണം ബുക്കുകളാണല്ലോ ഇപ്പം എല്ലാ കാലവും ഉണ്ടാവണം എന്നു നിർബന്ധം ഇല്ലല്ലോ അപ്പം പക്ഷെ ഇന്നത്തതെന്നു അങ്ങനെയല്ല എല്ലാം ഇലക്ട്രോണിക്കിലാണ് ആരോഗ്യ രേഖകൾ അതായത് രേഖപ്പെടുത്തുന്നതും കാര്യങ്ങളൊക്കെ ഇലക്ട്രോണിക് പരമായിട്ടാണ് പിന്നെയെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം ആരോഗ്യ കേന്ദ്രങ്ങൾ അങ്ങനെയുള്ള എല്ലാ എല്ലാം നമുക്കിപ്പോൾ ഇലക്ട്രോണിക് കാലമാണ് അതായത് നമുക്ക് എനിയിപ്പം ഇറങ്ങിയിരിക്കുന്നത് അത് എ ഐൻ്റെ കാലം അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അപ്പം എല്ലാ കാര്യങ്ങളും ഇപ്പം കമ്പ്യൂട്ടറിലൂടെ എല്ലാ കാര്യങ്ങളും സ്റ്റോറ് ചെയ്ത് വയ്ക്കുന്നതാണ് ഇപ്പോഴത്തെ അതായത് ഇന്നത്തെ തലമുറയുടെ ഒരു അതിനുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങളും കാര്യങ്ങളും ഉണ്ട്